ബി എസ് എൻ എല് ലാന്ലൈന് ഇപ്പോള് ഉപയോഗിക്കാന് ഉപഭോക്താക്കള്ക്കാര്ക്കും താല്പ്പര്യമില്ല ഒന്നാമത് തന്നെ അവരുടെ കസ്റ്റമേസിനോടുള്ള ഇടപെടൽ വളരെ മോശമാണ് ആ രീതിയില് പോവുന്നത് കൊണ്ട് ഉപഭോക്താക്കള് മിക്കവരും ലാന്ലൈന് ഉപേക്ഷിച്ച് മൊബൈലിലേക്ക് തന്നെ മാറുകയാണ് അതും ഐഡിയാ ജിയോ പോലുള്ള മൊബൈല് നെറ്റ്വർക്ക് കമ്പനികളാണ് കൂടുതലും ഉപഭോക്താക്കള് ഉപയോഗിക്കുന്ന ബീ എസ് എന്നലിന്റെ നെറ്റ്വർക്കുപോലും ഉപയോഗിക്കാന് പലരും ഇഷ്ടപ്പെടുന്നില്ല കാരണം നെറ്റ്വർക്ക് ഭയങ്കര സ്ലോയാണ് അതുപോലെത്തന്നെ ലാന്ലൈന് ഉള്ളവര്ക്ക് ബി എസ് എൻ എല്ലിന്റെ ഇത് അവരുടെ ചതി മൂലം ഒരുപാട് ബില്ല് വരാറുണ്ട് ആ ബില്ല് കൂടുതൽ വരുന്നതുകൊണ്ട് ഉപഭോക്താക്കള് ബില്ല് കട്ട് ചെയ്യുന്നുണ്ട് ബില്ല് ലാന്ലൈന് കട്ട് ചെയ്തതിനു ശേഷം ബില്ല് വന്നു എനിക്ക് എന്നൊരു മെസേജ് ബില്ല് ഇട്ടൊരു മെസേജ് എനിക്ക് വന്നു പക്ഷേ ഞാനാ ബില്ല് അടച്ചതായിട്ടാണ് എന്റെ ഓര്മ്മയില് ഉള്ളത് അതുകൊണ്ട് ഞാനത് അടയ്ക്കാന് തയ്യാറല്ല അതുകൊണ്ട് ബി എസ് എൻ എല്ലിന്റെ ഓഫീസേഴ്സിനോട് ഞാനത് രേഖാമൂലം പരാതി നല്കിയിട്ടുണ്ട് അത് എത്രയും പെട്ടെന്നത് ചെക്ക് ചെയ്ത് അതിന്റെ കറക്റ്റ് വിവരം അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എത്രയ്ക്കാണെന്ന് പറഞ്ഞാലും ബി എസ് എൻ എൽ ഉപയോഗിക്കാന് ഇപ്പോള് ഒട്ടുമേ താല്പ്പര്യമില്ല കാരണം അവരുടെ ഇടപെടൽ അവരുടെ ക്രമീകരണങ്ങളും ഒന്നും ശരിയല്ല നെറ്റ്വര്ക്ക് ഭയങ്കര വളരെയധികം സ്ലോയാണ് അതുകൊണ്ട് നമ്മള്ക്കുപയോഗിക്കാന് ഒട്ടുമേ താല്പ്പര്യമില്ല നമ്മള്ക്ക് വൈഫൈ നെറ്റ്വര്ക്കൊക്കെ ബി എസ് എൻ എൽ തരുന്നുണ്ടെങ്കിലും പക്ഷെ എങ്കില് നമ്മള്ക്കത് എത്രയും സ്ലോ ആയിട്ടാണ് പോകുന്നത് ഒരു ജോലിയിലൊക്കെ ചെയ്യുന്നവര്ക്കും അതുപയോഗിക്കുന്നവര്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉപയോഗിക്കാൻ ഭയങ്കര സ്ലോയാണ് ആയതിനാല് എനിക്കിത് മുന്നോട്ടുപയോഗിക്കാന് താല്പ്പര്യമില്ല ബി എസ് എൻ എൽ നെറ്റ്വര്ക്കൊന്നുമുപയോഗിക്കാന് താല്പ്പര്യമില്ല ലാന്ലൈന് ബില്ലാണെങ്കിലും അതിഭയങ്കരമായിട്ട് വന്നതുകൊണ്ടാണ് ഞാന് പക്ഷേ ബില്ലടച്ചതാണ് എന്നിട്ടും വീണ്ടും എനിക്ക് ബില്ലടയ്ക്കാനായിട്ടുണ്ട് അവർ മെസേജ് ഇട്ടേക്ക് ടെക്സ്റ്റ് മെസേജ് ഇട്ടേക്കുന്നു പക്ഷേ ഞാനതിന് തയ്യാറല്ല കാരണം എന്റെ കയ്യിൽ അടച്ച രേഖകൾ ബില്ലടച്ചതിന്റെ രേഖ എന്റെ കയ്യിലുണ്ട് ആയതിനാല് അവരോട് തന്നെ അത് ചെക്ക് ചെയ്ത് അതിന്റെ കാര്യങ്ങള് അന്വേഷിക്കാന് പറഞ്ഞിരിക്കുകയാണ് അത് അന്വേഷിച്ച് അതിന്റെ കൃത്യമായ വിവരം എന്നെ അറിയിക്കുകയെന്നുള്ളത് അവരുടെ ബാധ്യതയില് ഒതുങ്ങുന്നതാണ് അവർ തന്നെ അത് ചെയ്ത് തരണം ഞാൻ ബി എസ് എൻ എല്ലിന്റെ ഉപയോഗം അതുകൊണ്ട് ഞാന് നിര്ത്തുകയാണ് എനിക്കത് താല്പ്പര്യമില്ല ലാന്ലൈന് കട്ട് ചെയ്ത് മൊബൈല് തന്നെ യൂസ് ചെയ്യുന്നതാണ് എനിക്കും താല്പ്പര്യം അത് വോഡാഫോണ് പോലെയുള്ള കമ്പനികളുടെ നെറ്റ്വർക്ക് ഉപയോഗിക്കുമ്പോള് നമ്മള്ക്ക് സ്പീഡ് കിട്ടാറുണ്ട് അത് നമ്മൾക്ക് ഏറ്റവും ഉപകാരമാണ് എവിടെ പോയാലും ആ നെറ്റ്വർക്ക് കിട്ടുകയും ചെയ്യും ഇത് ബി എസ് എൻ എല്ലിന്റെ നെറ്റ്വർക്ക് പോലും നമുക്കെവിടെ ചെന്നാൽ എല്ലായിടത്തും ഒന്നും കിട്ടത്തില്ല ഭയങ്കര സ്ലോയാണ് കിട്ടിയാൽ തന്നെ നമുക്ക് നെറ്റ്വർക്കുപയോഗം ഭയങ്കര സ്ലോയാണ് അതുകൊണ്ട് ഉപയോഗിക്കുന്നില്ല മൊബൈല് എല്ലാവര്ക്കും മൊബൈലിന്റെ ഉപയോഗം കൂടിയതോടുകൂടി ലാന്ലൈനിന്റെ ആവശ്യം ഇല്ലാതെ ആവുകയാണ് അതുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാനും താല്പ്പര്യമില്ല എത്രയും പെട്ടെന്നുതന്നെ അത് കട്ട് ചെയ്യണമെന്ന് ഞാൻ അപേക്ഷ വെക്കുകയാണ് കാരണം എനിക്കിനി ബില്ല് ഇതുപോലെ അടയ്ക്കാന് താല്പ്പര്യമില്ല ബില്ല് നമ്മളടച്ചാലും വീണ്ടും അടയ്ക്കുകയെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും മെസേജ് വന്നുകൊണ്ടിരിക്കുകയാണ് അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല എന്ത് ചതിയാണെന്നും അറിയില്ല അതുകൊണ്ട് എനിക്കതിനോട് താല്പ്പര്യമില്ല ഞാൻ ഇതിന്റെ മെയിന് ഉദ്യോഗസ്ഥരോട് ഒരു റിക്വെസ്റ്റായിട്ട് പറയുകയാണ് എനിക്കിത് കട്ട് ചെയ്ത് ബില്ലടച്ചോയെന്നുള്ളതിന്റെ കറക്റ്റ് വിവരവും ഒന്നറിയിക്കുക എന്നുള്ളത് അവരുടെ ബാധ്യസ്ഥതയിലാണ് ഉള്ളതാണ്